സമയം എടുത്ത് ചെയ്തത് സദ്യ ആണ് സദ്യയിൽ പിന്നേ അവിയൽ ഉണ്ടാക്കും അവിയൽ ഉണ്ടാക്കാൻ ഞാ മുരിങ്ങക്കായ എടുക്കും കുമ്പളങ്ങ എടുക്കും ചേന എടുക്കും പിന്നെ കയ്പ്പയ്ക്ക പയർ ബീൻസ് ഒക്കെ നീളത്തിൽ അരിഞ്ഞ് ക്യാരറ്റും ഒക്കെ നീളത്തിൽ അരിഞ്ഞ് വെള്ളം കഴുകി വെള്ളം ഒഴിക്കാതെ പിന്നെ ആവിയിൽ വെച്ചിട്ട് വേവിക്കും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെയിട്ട് എന്നിട്ട് പിന്നെ വെന്ത് വരുമ്പോൾ പിന്നെ പ നാളികേരവും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഒതു ജീരകം ഒക്കെ ഒതുക്കി ഈ അവിയലിലേക്ക് ചേർത്തി ഒന്ന് മൂ മൂത്ത് വരുമ്പോൾ കുറച്ച് തൈര് ഒഴിച്ചിട്ട് തൈര് ഒന്ന് തിളയ്ക്കാൻ നിൽക്കില്ല അപ്പോഴേക്കും ഇറക്കി വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് ഇറക്കിവയ്ക്കും പിന്നെ സദ്യയിൽ ഞാൻ ഉണ്ടാക്കാറ് കാളൻ ഉണ്ടാക്കും കാളൻ ചേനയും കായും വലിയ കുറച്ച് വലിയ കഷ്ണം ആക്കി മുറിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് വേവിക്കും വേവിച്ചിട്ട് പിന്നെ വെന്ത് വരുമ്പോൾ നാളികേരം പച്ചമുളകൊക്കെ നല്ലോണം അരച്ച് ചേർക്കും അരച്ച് ചേർത്തിട്ട് പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ തൈര് ചേർത്തിട്ട് ഇറക്കി വയ്ക്കും എന്നിട്ട് ഉലുവയും കടുകും ഒക്കെയിട്ട് വറുക്കും കരിവേപ്പിൻറെ ഇലയും ഉണക്കമുളകും ഒക്കെ ഇട്ട് വറ വറവിടും പിന്നെ ഉണ്ടാക്കാറ് ബിരിയാണിയാണ് ബിരിയാണിക്ക് കുറച്ച് സമയം എടുക്കും അത് പൊരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ പൊരിക്ക് മസാല പിന്നെ ചിക്കൻ ഒക്കെ നല്ലോണം കഴുകി മസാല പൊടികളൊക്കെ ചേർത്ത് നെ കുറച്ചുനേരം വെച്ചിട്ട് എണ്ണയിൽ പൊരിച്ച് വയ്ക്കും ആദ്യം എന്നിട്ട് പിന്നെ വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് പച്ചമുളക് ഇഞ്ചി വൽ വെളുത്തുള്ളി ഒക്കെ മിക്സിയിൽ ചതച്ച് ചതച്ചിട്ട് നല്ലോണം മൂപ്പിക്കും ഉള്ളി ആദ്യം മൂപ്പിക്കും എന്നിട്ട് പിന്നെ ഈ ചതച്ചതൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ച് തക്കാളിയൊക്കെ ഇടും തക്കാളി ഇട്ട് തക്കാളി ഒക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ

തൈ ചതച്ച് വെച്ചതൊക്കെ ചേർക്കും മസാല പൊടികളൊക്കെ ഇടും എന്നിട്ട് നല്ലോണം മൂപ്പിച്ച് മൂത്ത് വരുമ്പോൾ ചിക്കൻ കഴ് ഇത് ചിക്കൻ വറുത്തുവെച്ച ചിക്കൻ അതിലേക്കിടും എന്നിട്ട് കുറച്ച് തൈര് ഒക്കെ ഒഴിച്ച് അടച്ചുവെച്ച് കറിവേപ്പിൻറെ ഇല ഒക്കെ ഇട്ട് അടച്ച് വയ്ക്കും പിന്നെ അരി ബിരിയാണിക്ക് അരി കഴുകി ഊറ്റി തെള തിളപ്പിച്ച് ഊറ്റിയിട്ട് ദം പിന്നെ ദം ഇടലാണ് അങ്ങനെ കുറച്ച് സമയം പിടിക്കാറുണ്ട് പിന്നെ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കലത്തപ്പം പച്ചരി കുതിർത്തിട്ട് മിക്സിയിൽ അരയ്ക്കും അരച്ച് കുറച്ച് കട്ടി കുറ കുറച്ച് ലൂസിൽ അല്ല കുറച്ച് കട്ടിയായിട്ട് അരയ്ക്കുക എന്നിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഉള്ളിയും നാളികേരക്കൊത്തൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിൽ നിന്ന് കുറച്ച് വാരി കുറച്ച് എടുത്തു വയ്ക്കും എന്നിട്ട് ഈ മാവ് ശർക്കര ചൂ ശർക്കര ഇങ്ങനെ ഉരുക്കി ആ ചൂടോടുകൂടി ഈ മാവിൽ കുക്കറിലേക്ക് കലക്കിയിട്ട് അപ്പോൾ തന്നെ കലക്കി കുക്കറിലേക്ക് ശർക്കര ഉരുക്കിയതും മാവും കലക്കിയത് ചൂടോടെ തന്നെ ഒഴിച്ചിട്ട് പിന്നെ മേലെ ഈ എടുത്തുവെച്ചതിൽ നിന്ന് കുറച്ച് മേലെ ഇടും എന്നിട്ടു കുക്കർ അടയ്ക്കും കുക്കർ അടച്ചിട്ട് പിന്നെ വിസിൽ ഊരി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ആവി വരും അപ്പോൾ അത് വരുന്നത് വരെ കാത്തിരിക്കും എന്നിട്ട് അത് ആവി വരുമ്പോൾ കുക്കർ ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നല്ല കി കലത്തപ്പം കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ പായസം പായസം ഉണ്ടാക്കും പായസം എനിക്ക് സേമിയ ആണ് കൂടുതൽ ഇഷ്ടം ഞാൻ സേമിയ ഉണ്ടാക്കാറുണ്ട് സേമിയ നല്ല വറുത്ത് നെയ്യിൽ നല്ലോണം വറുത്ത് പാൽ അടുപ്പത്ത് വെച്ച് തിളച്ചിട്ട് സേമിയ ഒക്കെ ഇട്ട് നല്ലോണം കുറുകി വരുമ്പോൾ പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഏലയ്ക്ക പൊടി ഒക്കെ ഇട്ട് നല്ലോണം കുറുകി വരുമ്പോൾ ഇറക്കി വയ്ക്കുക അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ വറവിടും എന്നിട്ട് അങ്ങനെയാണ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് പിന്നെ മീൻകറി വയ്ക്കാറുണ്ട് മീൻകറി നല്ല നാടൻ വെപ്പാണ് ഞാൻ വയ്ക്കാറ് ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി പ പ ചെറിയ ഉള്ളി ഒക്കെ നല്ലോണം ചതച്ചിട്ട് വ പിന്നെ മുളകുപൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് പിന്നെ ഒക്കെ ചതച്ചിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് തക്കാളിയൊക്കെ ഇട്ട് തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് വറ്റി വരുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കിവയ്ക്കും കരിവേപ്പിൻറെ ഇലയും ഇട്ട് അങ്ങനെയാണ് ഞാൻ മീൻകറി വയ്ക്കാറ് പിന്നെ